മലപ്പുറത്ത് കാലാവസ്ഥ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു മഴ ഒട്ടും തന്നെ ഇല്ല പിന്നേ വേനൽ നല്ല കൊടും ചൂടാണ് പൊള്ളലും ഒക്കെ ഉണ്ടാവുന്നുമുണ്ട് പിന്നെ വെള്ളപ്പൊക്കം മുമ്പൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മൾ വീട്ട്ക്കെത്തിട്ടില്ലച്ചില്ലങ്കിലും നമ്മൾക്ക് പുറത്തെറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചൂട് അതേ മാതിരിയാണ് ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂടാണ് ഒരുപാട് പേരുകൾ ആളുകൾ പിന്നെ ചൂട് കാരണം മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ പൊള്ളലേറ്റിട്ട് മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കേസ് ഇതായിട്ടുണ്ട് വേറെ ഉള്ള അസുഖങ്ങളും വരും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിലുണ്ട് ഒരുപാട് ആൾക്കാർ മരണം മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ അസുഖം മാറിയവരുണ്ട് അങ്ങനെ മലപ്പുറത്ത് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് തന്നെയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രിയും മുപ്പത്തി മൂന്ന് ഡിഗ്രിയുമൊക്കെ ആയിട്ടുണ്ട് എന്നാലും നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എങ്ങും ഇറങ്ങാനും വയ്യ എവിടെ പോയാലും സഹിക്കാൻ വയ്യ ചൂട് കാരണം അങ്ങനത്തെ ഒരു ചൂടാണ് ഭയങ്കരം പ്രശ്നങ്ങൾ തന്നെയാണ് ചൂട് കാരണം ഭയങ്കര പ്രശ്നങ്ങളാണ്